കാർഷിക വ്യവസായത്തെ പിന്തുണയ്ക്കുന്നതിന് അതായത് ഇന്ന് കൃഷികൾ ചെയ്യുന്ന ജനങ്ങൾക്ക് കൃഷി കൃഷി ഓഫീസുകളിൽ നിന്നും വിത്തുകൾ അതുപോലെ വളങ്ങൾ ആ കൃഷിക്ക് ആവശ്യമായുള്ള സാധനങ്ങൾ ഇതെല്ലാം തന്നെ ലഭിക്കുന്നുണ്ട് കുറഞ്ഞ ചിലവിൽ തന്നെ അതുപോലെ ഗ്രോ ബാഗുകൾ വിത്തുകൾ ആ വിത്ത് മുളപ്പിച്ച് അതിൻ്റെ തൈകൾ ചില ദിവസങ്ങളിൽ വളങ്ങൾ ചില ദിവസങ്ങളിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് അതുപോലെത്തന്നെ ഒരു കൃഷി ചെയ്ത് ആ കൃഷി ചെയ്തുകിട്ടുന്ന ആ വസ്തുക്കൾ പച്ച അതായത് പച്ചക്കറികളാണെങ്കിൽത്തന്നെ ആ പച്ചക്കറികൾ ഒരുമിച്ച് കൊണ്ടുവിൽക്കാനും അത് വിഷാംശങ്ങളും ഒന്നുമില്ലാത്ത നാടനായുള്ള പച്ചക്കറികൾ കൊണ്ടുവിൽക്കാനുമുള്ള സാഹചര്യങ്ങൾ കൃഷി വകുപ്പുകളിൽ സജ്ജമാക്കിക്കൊടുക്കുന്നുണ്ട് ഇത് കൂടുതലും സഹകരണ സ്ഥാപനങ്ങളിൽ അതായത് ഇപ്പോൾ ഒരു സൊസൈറ്റി സൊസൈറ്റിയിൽ അവരുടേത് താഴെത്തന്നെ മാവേലി സ്റ്റോറ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും അതുപോലെത്തന്നെ ഈ കൃഷി കൃഷിഭവൻ കൃഷിക്കാവിശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാനും കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളും രേഖപ്പെടുത്താനും എല്ലാം ആളുകളുണ്ടായിരിക്കും മാന്യമായ രീതിയിൽ ജനങ്ങൾക്ക് ഒരു ജീവിത മാർഗ്ഗമെന്ന രീതിയിൽ കൃഷി ചെയ്ത് അതായത് പണ്ട് മുതൽക്കുതന്നെ ഈ കർഷകരായിട്ടുള്ള ആളുകളുണ്ടാവും കൃഷി ചെയ്തു ജീവിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്കെല്ലാം വേണ്ടി അത് അവർക്കൊരു ജീവിതമാർഗ്ഗം എന്ന രീതിയിൽ കൃഷിക്കുവേണ്ടി സഹായിക്കാൻ സഹകരണ സ്ഥാപനങ്ങൾ അതുപോലെ കൃഷിഭവൻ കൃഷി അങ്ങനെയുള്ള പഞ്ചായത്തുകളിലും കാര്യങ്ങളിലും എല്ലാം സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അതുപോലെ ബ്ലോക്കുകളിൽ നിന്നായാലും പഞ്ചായത്തുകളിൽ നിന്നായാലും സഹകരണ ബാങ്കുകളിൽ നിന്നായാൽക്കൂടെ ഇപ്പോൾ ഒരു മാന്യമായ രീതിയിൽ അവർക്ക് ഉപജീവനമാർഗ്ഗം അതായത് അവർക്ക് ജീവിക്കാനായിട്ട് ഒരുപാട് പണിയെടുക്കാൻ കഴിയാത്തവരുണ്ടാവാം അല്ലെങ്കിൽ മണ്ണിൽ പണിയെടുത്തിട്ട് മറ്റു പണികൾക്ക് പോകുവാൻ പറ്റാത്തവരുണ്ടാവാം പണ്ടത്തെ പണ്ടു മുതൽക്കെ തന്നെ നല്ല രീതിയിൽ അദ്ധ്വാനിച്ചു ജീവിച്ച ആളുകളുണ്ടാവാം അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം വേണ്ടിയിട്ട് കൂടുതൽ സഹായകമായിട്ടാണ് ഇവർ മുന്നിട്ടുനിൽക്കുന്നത് ഇത് കൂടുതലും കർഷകർക്കാണ് അതായത് ഇപ്പോൾ മണ്ണിൽ പണിയെടുത്ത് കുടുംബം നോക്കുന്നവർക്ക് ഒരുപാട് സ്ഥലമുള്ളവർക്ക് കൃഷി ചെയ്യാൻ സ്ഥലമുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കാണ് കൂടുതലും ഇത് കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്നത് ഇപ്പോൾ ആർക്കുവേണമെങ്കിലും ചെറിയ ചെറിയ തൈകളും അതുപോലെ തക്കാളിത്തൈകൾ പച്ചമുളക് അതുപോലെ പച്ചക്കറികൾ അതിൻ്റെ വിത്തുകളായാലും തൈകളായാലും ഇന്ന് ലഭിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് അവർക്കൊരു ഉപജീവനമാർഗ്ഗമായിക്കോട്ടെ അല്ലെങ്കിൽ അവർക്കൊരു ജീവിതമാർഗ്ഗമായിക്കോട്ടെയെന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്ന ചെയ്തു സഹായിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു സഹകരണ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽതന്നെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം